ആ എന്താണ് സാറേ സാർ സാധനങ്ങളൊക്കെ വരാതെ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് എന്താണ് സാധനം ഇരിക്കുന്നത് രണ്ട് ഇഷ്ടികയും രണ്ട് കമ്പിയും കൊണ്ട് എന്തൊക്കെ കെട്ടാൻ പറ്റുമോ വല്ലതും ബാക്കി സാധനങ്ങളൊക്കെ വരണ്ടേ

അത്രയ്ക്കുള്ള സാധനം അത്രയ്ക്കുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടെ മഴയും കാറ്റുമായിട്ടൊക്കെ കിടക്കുന്ന സാഹചര്യങ്ങളിൽ സാധനങ്ങളില്ലാതെ പണി നടക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ് കഴിഞ്ഞ ആഴ്ച്ചയേ നിങ്ങൾക്ക് ലിസ്റ്റ് തന്നതാണ് എന്നിട്ട് നിങ്ങൾ സാധനം അയയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ സാധനം വന്ന് എത്തിയിട്ടില്ല ലീവില് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ പറയാത്തതിന് ഞങ്ങൾക്കാണോ ഞങ്ങൾ ആണോ കുറ്റക്കാർ ആകുന്നത് അതിനിപ്പോൾ എനി എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇവിടെ മഴ ആയിട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ആ കറക്റ്റ് സമയം സാധനം എത്തിച്ചാലല്ലേ പണി നടത്തി പണിക്കാരെ കൊണ്ട് പണി നടത്താൻ പറ്റുള്ളൂ സാധനങ്ങൾ വരാതെ പണി പണി എന്ന് പറഞ്ഞാൽ എങ്ങനെ പണിയും ഇതെന്തൊരു കഷ്ടമാണ് ഞങ്ങൾ സാർ സാധനം അയയ്ക്കാതെ രൻ കുറച്ച് സാധനങ്ങൾ വെച്ച് എങ്ങനെ പണിയും എന്ന് പറ ആദ്യം സാറേ കുറച്ച് ഉള്ളതുകൊണ്ട് പണിഞ്ഞാൽ സാർ പറയുന്ന സമയത്തിനത് തീരണ്ടേ തീരില്ലല്ലോ ഞ ഞങ്ങൾ ജോ ജോലി ചെയ്തില്ല എന്ന് സാർ കണ്ടോ ഇല്ലല്ലോ പിന്നെ കാണാത്തതെന്തിനാണ് പറയുന്നത് ചെയ്യാതെ കിടക്കുന്നു എന്ന് ആ ആ ഞങ്ങളുടെ സാലറി നിങ്ങൾ കട്ട് ചെയ്ത് നിങ്ങലഉടെ പണി ഇവിടെ നടക്കില്ല അത്രേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നില്ല സാർ കണ്ടോ സാർ ഇനി വല്ലവരും ഒക്കെ പറയുന്നത് കേട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് സാർ സാർ ഒരു കാര്യം ചെയ്യ് ബാക്കി സാധനങ്ങളും കൂടെ അയയ്ക്ക് ഞാൻ ആൾക്കാരെക്കൊണ്ട് ദിടീന്ന് പണി പണിയിപ്പിച്ച് തരാം സാർ വാ

ഒരു മാസത്തിൽ ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റില്ല കാലാവസ്ഥ ഒക്കെ നോക്കണം അത് മനസ്സിലായോ കാലാവസ്ഥ നോക്കാതെ നമുക്ക് പണിയാൻ പറ്റില്ല പുറത്തുള്ള പണി പണിയണം എങ്കിൽ മഴയൊന്നും ഇല്ലാതിരുന്നാലേ പണിയാൻ പറ്റുള്ളൂ

ആ ആ ഇപ്പോൾ അത്

ആ ശരി ശരി